എനിക്കേറ്റവും ഇഷ്ടം വയനാടാട്ടോ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറെ കാലമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന ജില്ലയാണ് വളരെ അതിമനോഹരമായിട്ടുള്ള ജില്ലയാണ് ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നെങ്കില് പതിനാല് ജില്ലയില് എനിക്കേറ്റവും ഇഷ്ടം വയനാട് തന്നെയാണ് വയനാട്ടില് ഇഷ്ടംപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഇപ്പം നമ്മള് ചുരം കേറുവാണെങ്കി നമുക്ക് ലക്കിടി വ്യൂ പോയിൻറ് തൊട്ട് ഇഷ്ടംപോലെ ഇണ്ട് അവിടെന്നു വെച്ചാൽ ഒരു ട്രൈബെൽ ഒരിതുണ്ട് എന്താ പറയാ എന്നൂരെന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലൊരു മലേടെ മേളില് അവര് ട്രൈബലാ ട്രൈബലിൻ്റെ വീട് വളരെ മനോഹരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് കേറീട്ടുണ്ടെങ്കി നമ്മള് എസി നിക്കുപോലെ തണുപ്പാണ് കാറ്റും അവിടത്തെ ഫുഡ് അവരുടെ ട്രഡീഷണൽ ഫുഡ് ഒരു വനറാണീന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള സംഭവാണ് വളരെ ടേസ്റ്റി ആയിരിക്കും പിന്നെ പച്ചമുളക് അവരുടെ കുറെ പച്ച ഇലകളൊക്കെ വെച്ചിട്ടാണ് അവരാ സംഭവം ചെയ്യുന്നത് ട്രഡീഷണലായിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ട് സൂപ്പർ ഫുഡാണ് അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് പൂക്കോട് തടാകമുണ്ട് അവിടെ നമുക്ക് ബോട്ടിങ്ങുണ്ട് മക്കൾക്ക് കളിക്കാം വളരെ മനോഹരമായിട്ട് അവിടെ എന്ത് രസാണ് കാണാന് അവിടന്നങ്ങോട്ട് വരുവാണേൽ നമുക്ക് കൽപ്പറ്റയെത്തിക്കഴിയുമ്പം പാർക്കുണ്ട് ട്രൈബലിൻ്റെ തന്നെ ഒരു ഗ്ലോബൽ ട്രൈബൽ പാർക്കുണ്ട് മക്കൾക്കു കളിക്കാം വല്ല്യോർക്കും കളിക്കാം വളരെ നല്ല ഭംഗിയായിട്ട് നമ്മടെ ഹൈവേൻ്റെ അവിടെ സൂപ്പർ പാർക്കാണ് അതുകഴിഞ്ഞ് ഞങ്ങള് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡാമുണ്ട് പടിഞ്ഞാറത്തറ ഡാമുണ്ട് നമ്മടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതേപോലെത്തന്നെ കാരാപ്പുഴ ഡാമുണ്ട് വളരെ മനോഹരമായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും ഡാമ് കാണാനും വളരെ മനോഹരിതയാണ് അത് എന്താ പറയാ പറഞ്ഞാൽ വാക്കുകളില്ല നമ്മള് കാണണം അത്രയും മനോഹരമായിട്ട് ചെയ്തേക്കുന്നെയാണ് പിന്നെ തൊള്ളായിരം കണ്ടിയുണ്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ രണ്ട് വെള്ളച്ചാട്ടമുണ്ട് നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളിങ്ങോട്ട് വരുവാണെങ്കില് മാനന്തവാടി ഭാഗത്തോട്ട് നോക്കുവാണെങ്കി പഴശ്ശിക്കുടീരമുണ്ട് അത് പഴശ്ശിയെ അടക്കിയ സ്ഥലമെന്നാണ് പറയുന്നത് അപ്പം വളരെ നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന അതിപ്പഴും അവര് മെയിൻ്റയിൻ ചെയ്യുന്നെന്നേ ഉള്ളൂ പണ്ടവിടൊരു മരമുണ്ടായിരുന്നു ആ മരം ഒണങ്ങിപ്പോയി ഇപ്പഴും അതവിടെ മെയിൻ്റയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു അവരുടെ അസ്ഥി ആ കല്ലറയും കാര്യങ്ങളുമൊക്കെയായിട്ട് പിന്നെ കുറുവാ ദ്വീപ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലാണ് പിന്നെ പ്രത്യേക തടാകമുണ്ട് ട്രക്കിങ്ങിനൊക്കെ പോകുവാണെങ്കില് വളരെ ഇതാണ് പിന്നെ നമുക്ക് കുറെ കുറെ നല്ല നല്ല സ്ഥലമുണ്ട് ബത്തേരി ഭാഗത്ത് വരുവാണെങ്കില് മുത്തങ്ങാ ഉണ്ട് പിന്നെ ജെയിൻ ടെമ്പിളുണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ടെമ്പിളാണ് അതും ശില കല്ല് കൊണ്ട് കല്ലിൽ കൊത്തിയ ശിലകളാണ് അതിലുള്ളത് വളരെ മനോഹരമായിട്ട് കൽപ്പണിയാണ് ഇത്രയും ആൾക്കാര് കൂടിയിട്ട് ഒരു ടെമ്പിൾ എന്ന് പറയാന്ന് വെച്ചാ വളരെ ആ അതിൻ്റെ നടുക്ക് അതിൻ്റെ ഉള്ളില് നമുക്ക് ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു കവാടം പോലെ അതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്കൊരു ദ്വാരമുണ്ട് നമുക്ക് മൈസൂര് വരെ പോവാന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല സത്യമാണോന്ന് പക്ഷേ വളരെ മനോഹരമായിട്ടു ചെയ്തിരിക്കുന്നെയാണ് കാണാനും ഇവിടുത്തെ വിനോദസഞ്ചാരമെന്ന് വെച്ചാ ഒത്തിരി ആളുകൾ പുറത്തു നിന്ന് ഇഷ്ടംപോലെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ എടക്കൽ ഗുഹ നാലായിരം അയ്യായിരം അടി മേലെയാണത് സ്ഥിതി ചെയ്യുന്നെ അത്രയും ഹൈറ്റില് എന്ത് രസായിട്ടാണ് കല്ലുകള് കൊണ്ടു ഇതാക്കിയേക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരിയേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങള് വയനാട്ടിലൊണ്ട് ഇവിടെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പുരോഗമനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം പിള്ളേരൊക്കെ പുറത്തുപോയി പഠിക്കാൻ തുടങ്ങി കാനഡ യൂക്കെ അവിടൊക്കെ പഠിക്കാൻ പോയി പക്ഷേ ഒരു പ്രായമായി ഒരു ഏജിടായിട്ടുള്ള ഒരു നാൽപ്പത് തൊട്ട് അറുപത് വരെയുള്ള പ്രായമായിട്ടൊള്ള ആൾക്കാരുടെയൊക്കെ ഉപജീവനം സാധാരണക്കാരുടെ ഉപജീവനമെന്ന് പറയുന്നത് ഇവിടെ കൃഷിയാണ് വാഴ നെല്ല് പോലെയുള്ള കൃഷിയാണ് അവരുടെ ഉപജീവനമായിട്ട് പോവുന്നെ കപ്പ പക്ഷേ അവർക്ക് എന്ത് നട്ടിട്ടും ഇപ്പം കാര്യമില്ല ഒന്നുങ്കി കാലാവസ്ഥ നമ്മുടെ പിന്നെ ഇത് കാലാവസ്ഥയൊരു മുഖ്യഘടകമാണ് രണ്ടായിരത്തി പതിനേഴില് മറ്റേ ഇതുവന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രളയം പതിനെട്ട് പതിനേഴ് ആ പ്രളയം വന്ന സമയം തൊട്ടിട്ട് കാലാവസ്ഥ വളരെ മോശായിട്ടാണ് നമുക്ക് ഫീല് ചെയ്യുന്നത് എല്ലായിടത്തും അതെ വ്യക്തമായിട്ടൊരു ഒരു ചാർട്ടുണ്ടായിരുന്നു പണ്ട് ഇന്ന ഇത്രമാസം വരെ മഴ അതുകഴിഞ്ഞിട്ട് ഇത്രമാസം വരെ വെയില് തണുപ്പ് അങ്ങിനെയൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല മഴയുണ്ടോന്ന് ചോദിച്ചാൽ മഴയുണ്ട് കണ്ടിന്യൂസ്ലി മഴയുണ്ട് അതേപോലെ വെയിലും ഒണ്ട് പിന്നെ നമ്മടെ മരം വെട്ടുന്നത് വെയില് കൂടാനുള്ളൊരു കാരണമാണ് പിന്നെ വന്യജീവിയെന്ന് വെച്ചാ വളരെ ഉപഗ്ര ഉപദ്രവമുള്ളൊരു കാര്യമാണ് വന്യജീവീനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി പന്നിയായിട്ടും കുരങ്ങായിട്ടും ഒരാർക്കും ഒരു വിളയും കിട്ടുന്നില്ല പന്നിയെല്ലാം കുത്തിനശിപ്പിക്കുന്നു കപ്പ നട്ടാലും വാഴ നട്ടാലും എല്ലാം ക പിന്നെ കുത്തിക്കളയുന്നു അതുകൊണ്ടെന്തു കാര്യാണുള്ളത് അതേപോലെ ഒരു ഫ്രൂട്ട്സോ മാങ്ങാ ചക്ക അങ്ങനെ എന്തുണ്ടായാലും ഒരു ചെറിയ എന്തുണ്ടായാലും കൊരങ്ങു ശല്ല്യം അതിൽ അത്രയ്ക്കും കൂടുതലാ സാധാരണ മനുഷ്യരാണ് കൃഷി ചെയ്തു ജീവിക്കുന്നവരാണ് വന്യ അവർക്കും ജീവിക്കണം വന്യജീവിക്കളെ സംബന്ധിച്ച് ആ കുരങ്ങിനും ഇതിനൊക്കെ ജീവിക്കണം പക്ഷേ അവര് നമ്മുടെ ഭൂ അതായത് ജനവാസകേന്ദ്രങ്ങളിൽ എറങ്ങിയിട്ട് ഈ നശിപ്പിക്കുന്ന നശിപ്പിച്ച് കളയുന്നുണ്ടല്ലോ ഓരോ സാധനങ്ങളും വളരെ ദുഖമുള്ള കാര്യാണ് ഇങ്ങിനെ നശിപ്പിച്ച് കഷ്ടപ്പെട്ടോരോന്ന് അവരോരുത്തരും കഷ്ടപ്പെട്ടാണ് ഓരോന്നൊണ്ടാക്കുന്നത് അത് നശിപ്പിക്കും പിന്നേ ഇപ്പൊ ആണെങ്കില് പുലിയിറങ്ങുന്നുണ്ട് കടുവയെറങ്ങുന്നുണ്ട് ജനവാസകേന്ദ്രത്തില് ആനയിറങ്ങുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇതൊക്കെ എറങ്ങുന്നോണ്ട് പക്ഷേ എന്തെയ്യാനാ പറ്റാ ഇതൊക്കെ അതിജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു

വയനാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വയനാട് വിട്ടിട്ട് ഞാനെവിടേക്കും പുറത്തുപോയിട്ടില്ല ജസ്റ്റ് ടൂറ് ഒൺ ടു ഫോർ ഡേയ്സ് അത്രേയുള്ളൂ അതിൽ കൂടുതലൊന്നും പോയി മാറി നിന്നിട്ടില്ല എൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷം കാലഘട്ടത്തിലും കൂടുതൽ ഭാഗം ഞാൻ വയനാട്ടിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് വയനാട്ടിനെക്കുറിച്ച് പറയാണെങ്കി വളരെ മനോഹരിതയും വളരെ കാം കൂളായിട്ടുള്ള ഒരു പ്ലെയിസാണ് വയനാട് നമുക്ക് ഇപ്പൊ എന്താ പറയാ എവിടോക്കെ ചെന്നാലും നമ്മള് നമ്മടെ നാട്ടിൽ വരുമ്പോഴുള്ളൊരു ഫീലൊണ്ടല്ലോ അത് വേറെത്തന്നെയാണ് വളരെ മനോഹരമായിട്ട് എന്താ പറയുക കാലാവസ്ഥ എനിക്കിഷ്ടാണ് അവിടത്തെ എല്ലാം നമുക്കിപ്പം കോഴിക്കോട് പോയാ ഭയങ്കര ചൂടാ നമുക്ക് നിക്കാനേ പറ്റില്ല ഒരു ദിവസം പോലും നമുക്ക് നിക്കാൻ പറ്റില്ല ആ ഒരു രണ്ടുമണിക്കൂറ് നമ്മളീ വയനാട്ടിൽ ജീവിച്ചിരിക്കുന്ന വയനാട് വിട്ടു പുറത്തു പോവാത്തോരാൾക്ക് വേറെ സ്ഥലത്ത് പോവുമ്പം ഒട്ടും പറ്റില്ല അവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ ഈ മരങ്ങളൊക്കെ നിക്കുന്നോണ്ട് ഇവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊന്നും വയനാട്ട് ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല പുരോഗമനം ഉണ്ടെങ്കിലും അവരെല്ലാം മെയിൻ്റയിൻ ചെയ്തിട്ടാണ് പുരോഗമനത്തിലേക്ക് പോകുന്നത് പക്ഷേ പുറത്തോട്ടൊക്കെയാണെങ്കില് ഫ്ലാറ്റുകളൊത്തിരിയാണ് ഒരു മരം പോയിട്ട് ഒന്നും നമുക്ക് നിക്കാനുള്ള ഇതൊക്കെ വളരെ കുറവാണ് അത് വെച്ചുനോക്കുമ്പം നമുക്ക് വയനാട് ഒത്തിരി വളരെ എന്താ പറയാ വളരെ എനിക്ക് ഭയങ്കര സന്തോഷൊള്ളതാണ് നമ്മുടെ അമ്മേടെ മടി അമ്മേൻ്റെ മടിയിൽ വന്നിരിക്കുന്നൊരു ഫീലാണ് നമ്മടെ ഇവിടെ പോയിട്ടും തിരിച്ചു വയനാട്ടിൽ വന്നാ ചുരം കേറിവരുമ്പോഴുള്ള ഫീലുണ്ടല്ലോ മനസ്സിനും നമ്മടെ ശരീരത്തിനൊരു കുളിർമയുള്ള ഒരു കാര്യാണ് നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യാണ് വായനാടെന്നു വെച്ചിട്ടുണ്ടെങ്കില് ട്രഡീഷണൽ ഫുഡാണവിടെ ഇവിടെ വരുമ്പം കഞ്ഞിയുണ്ട് എല്ലാ എല്ലാത്തരം ഫുഡ് ഉണ്ടൂട്ടോ കാലം മാറുമ്പം എല്ലാം മാറും പക്ഷേ ആ ട്രഡീഷണൽ ഇന്നും മെയിൻ്റയിൻ ചെയ്തുപോകാൻ വയനാട്ടുകാര് ശ്രദ്ധിച്ചിട്ടുണ്ട് കഞ്ഞി കപ്പ കാന്താരി മുളകിട്ടുള്ള ചമ്മന്തി പിന്നെ ഗോത്രവർഗ്ഗക്കാര് കൂടുതലുള്ളതും വയനാട്ടിലാണ് അപ്പം അവരുടെ ഫുഡും നമ്മുടെ ഫുഡും വിത്യാസമൊന്നും ഇല്ല അവരു കുറച്ച് ഈ കാട്ടിലുള്ള സാധനങ്ങളും പിന്നെ ഈ ചേമ്പ് കാച്ചിൽ അതൊക്കെയാണ് അവര് കൂടുതലും ഇതാക്കുന്നെ ഇവിടെ ഏറ്റവും കൂടുതല് അങ്ങിനെയുള്ള സാധനങ്ങളൊണ്ട് അതൊന്നും നശിച്ചു പോവാതെ അവര് മെയിൻ്റയിൻ ചെയ്യുന്നുണ്ടെന്ന് ഒരു വലിയൊരു കാര്യമാട്ടോ പിന്നെ സാധാരണ ചോറ് പിന്നെ അവിയല് അങ്ങിനെ ഫുഡിന് വലിയ മാറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും എല്ലാ ഫുഡും ഒണ്ട് എല്ലാ ഫുഡും കഴിക്കുന്ന ആൾക്കാരുണ്ട് ഫുഡ് എല്ലാം അങ്ങനത്തന്നെ പോവുന്നു